ഒരുപാട് കാലമായി ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തണ്ടൂൽക്കറെപ്പറ്റിയുള്ള രചന ഞാനൊരുപാട് കാലമായി സച്ചിൻ്റെ ക്രിക്കറ്റ് കളി കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റവ്യൂകൾ അഭിമുഖങ്ങൾ കാണുകയും ചെയ്തിരുന്നു സച്ചിൻ എന്നത് ഇന്ത്യയിൽ ഒരു ദൈവത്തിന് പ്രതീകമാണ് അതായത് ക്രിക്കറ്റ് കളി ഒരു മതമായി ഇന്ത്യയിൽ വയ്ക്കുകയാണെങ്കിൽ ആ ക്രിക്കറ്റ് കളി എന്ന ഒന്നിൻ്റെ ദൈവമായി വരുന്നതാണ് സച്ചിൻ അതായത് ക്രിക്കറ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം സച്ചിനുമുണ്ട് കാരണം ചെറുപ്പത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഒരു പട്ടത്തണ്ട് വെട്ടി ഒരു മരത്തിൽ നിന്നൊരു കഷണമുണ്ടാക്കി അതിൽ എം ആർ എഫ് ടെൻ എന്നെഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ സച്ചിൻ എന്നെഴുതണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മനസ്സിൽ അതായത് ലോകത്തെ തിരിച്ചറിയാത്ത മനസ്സിൽ സച്ചിൻ എത്രത്തോളം പ്രാധാന്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നു തിരിച്ചറിയണം അപ്പോൾ ഞാനൊരു രചനയിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആദ്യമെഴുതുക സച്ചിനെപ്പറ്റിയായിരിക്കും സച്ചിൻ എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു വളർന്ന് ജനിക്കുന്ന ഒരാളുടെ ഇന്ത്യയിൽ ജനിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഇടം നേടുന്ന അതായത് ഈ ക്രിക്കറ്റ് അങ്ങോളം ജനകീയമായ ഇന്ത്യയിൽ ജനിക്കുന്നൊരു ബാലൻ്റെ മനസ്സിൽ ക്രിക്കറ്റിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അപ്പോൾ അത്രത്തോളം പ്രാധാന്യം സച്ചിനും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഈ ക്രിക്കറ്റ് ദൈവത്തോളം ആരാധിക്കപ്പെടുന്ന സച്ചിൻ എന്ന ഇതിഹാസത്തിനെപ്പറ്റിയൊരു രചന എഴുതുന്നതിനെപ്പറ്റി ഇന്ത്യയിൽ എഴുതാൻ പറ്റില്ല എന്നുകരുതുന്ന കുറച്ച് സെൻസിറ്റീവ് വിഷയങ്ങളുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിനെതിരെ ഉറപ്പുണ്ടാക്കുന്ന മതസ്പർദയുണ്ടാക്കുന്ന ഒരുപാട് മതങ്ങൾ ഒരുപാട് സമൂഹങ്ങളും ഒരുപാട് ഭാഷകളുമെല്ലാം സംസാരിച്ചുപോകുന്ന രാജ്യത്ത് ഇതിനെല്ലാം സമൂഹങ്ങൾക്കിടയിൽ വെറുപ്പ് ഉണ്ടാക്കുന്ന രചനങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല പ്രാധാന്യമില്ലെന്നു മാത്രമല്ല അത് എയുതാനും പാടില്ല ഇത്രയും സെൻസിറ്റീവായ വിഷയങ്ങളെപ്പറ്റിയൊരിക്കലും ഇന്ത്യയിൽ എഴുതാൻ പാടില്ല അതുതന്നെയാണ് നല്ലത് അതുപോലെ ഭീകരതയെ ബഹുമാനിച്ചു കാണിക്കുന്ന അതിന് പ്രോത്സാഹനം നൽകുന്ന രചനകളൊന്നും ഇന്ത്യയിൽ എഴുതാൻ പാടില്ല അത്രയും അതുപോലെ ചെറിയ കുട്ടികളെ അതുപോലെ മുതിർന്നവരെയൊക്കെ വഴിതെറ്റിക്കുന്ന പോണോഗ്രഫിക് വിഷയങ്ങൾ അതും ഒരു സെൻസിറ്റീവ് കണ്ടൻ്റാണ് അത്രയും വിഷയം അത്രയും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും എഴുതാൻ പാടില്ല സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കുന്ന സമൂഹം വ്യത്യസ്ത ചേരികളാവുന്ന അതായത് ഇന്ത്യയുടെ പ്രത്യേകത എന്നു പറഞ്ഞാൽതന്നെ എല്ലാവരും ഒരുമിച്ചു കഴിയുന്നു എന്നു തന്നെയാണ് അതിനെ അതിന് വിപരീതം സൃഷ്ടിക്കുന്ന രചനയൊന്നും ഇന്ത്യയിൽ എഴുതാൻ പാടില്ല അത്രയും അങ്ങനെയുള്ള ആ തരത്തിലുള്ള രചനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ദുഷ് ചെയ്തി എന്നു പറഞ്ഞാൽ അത് അതിൻ്റെ അപകടം എന്നു പറഞ്ഞാൽ ഒരു വലുതാണ് അതിനാൽ അത് എഴുതാൻ സാധിക്കില്ല അത് എഴുതാൻ സാധിക്കില്ല എന്നു മാത്രമല്ല എഴുതാൻ പാടുള്ളതുമല്ല